എൻ്റെ കൈയ്യിൽ ഒരു മനോഹരമായ ക്യാമറ ഉണ്ട് സോണിയുടെ ക്യാമറ ആണ് എൻ്റെ കൈയ്യിൽ ഉള്ളത് ഞാൻ അതിൽ പല പല ചിത്രങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്നും എടുത്തിട്ടുണ്ട് അതിമനോഹരമായ ചിത്രങ്ങളാണ് അതിൽ പകർത്താൻ സാധിക്കുന്നത് നല്ല വ്യക്തമായ ചിത്രങ്ങളാണ് എടുക്കാൻ സാധിക്കുന്നത് പലരും എന്നോട് ആ ക്യാമറ തരുമോ എന്ന് ചോദിക്കാറുണ്ട് കാരണം അത്രയും ഒരു പെർഫക്ഷൻ ഉള്ള ക്യാമറ ആണ് എൻ്റെ കൈയ്യിൽ ഉള്ളത് സോണിയുടെ ക്യാമറ ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് പറയുന്നതല്ല നിങ്ങൾക്കും അത് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം നല്ലൊരു ക്യാമറ ആണ് അത് അതിൽ ഞാൻ പല പല ഫീച്ചേഴ്സ് കണ്ടിട്ടുണ്ട് ഓട്ടോ ഫോക്കസ് പിന്നെ നല്ല ലെൻസ് ക്ലിയർ അങ്ങനെ പലതും ഞാൻ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പലരും എന്നോട് പറയാന് പറയാറുള്ളത് ആ ക്യാമറയെ തരുമോ എന്നാണ്